ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ അടുത്തായിട്ടൊരു വലിയ കുടുംബ തല്ല് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സ്വത്തിൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു അമ്മാവൻ്റെ മോനും സഹോദരനും കൂടെ തർക്കം ഉണ്ടായിരുന്നത് സ്വത്തിൻ്റെ പേരും പറഞ്ഞ് ആദ്യം വീട്ടിലോട്ട് വരികയും പിന്നെ ആയാളുടെ മുഖത്ത് നോക്കിയിട്ട് തുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു തല്ലിലോട്ട് തന്നെ അത് അവസാനം മാറി അവസാനം പോലീസുകാരൊക്കെ വന്ന് വലിയൊരു ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയി സ്വത്ത് വീതിക്കില്ല എന്ന ഒരേ വാശിയിൽ തന്നെയായിരുന്നു അമ്മാവൻ അവസാനം കോടതിയൊക്കെ ഇടപെട്ടു പക്ഷേ തല്ലിനൊരു കുറവും ഉണ്ടായില്ല അവസാനം ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത കാരണവർ എല്ലാവരോടും പറഞ്ഞ് പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് ഒരു വിധം ഇപ്പോൾ ഒത്തുതീർപ്പ് ആക്കിയിട്ടുണ്ട് അത് ഫാമിലിയിൽ ഒരു വലിയ ഒരു കൂട്ടത്തല്ല് തന്നെ ആയിരുന്നു പ്രായം പോലും വ്യത്യാസം നോക്കാതെ മക്കളും മക്കള മക്കളും മുത്തശ്ശന്മാരും എല്ലാം കൂടെ വലിയൊരു കൂട്ടത്തല്ല് തന്നെയായിരുന്നു സോ സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ തല്ല് ഉണ്ടായത്